സ്വച്ഛ് ഭാരത അഭിയാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നമ്മളെ പ്രതേകിച്ച് ബാധിച്ചിട്ടൊന്നുമില്ല കാരണമെന്നു വച്ചാൽ അവരവരുടെ വീടുകളും പരിസരങ്ങളും വൃത്തിയാക്കുന്നത് അവരവരുടെ ഉത്തരവാദിത്ത്വമല്ലേ അപ്പോൾ നമ്മുടെ വീടും പരിസരവും വൃത്തിയാകണമെന്ന് തീരുമാനിക്കേണ്ട നമ്മൾ തന്നെയാണ് പിന്നെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെയാണെങ്കിൽ വൃത്തികേടാക്കുന്നത് മനുഷ്യൻ തന്നെയല്ലേ മനുഷ്യൻ തന്നെയാണ് വൃത്തികേടാക്കുന്നത് മറ്റുള്ളവരെ അവനവൻ തന്നെ തീരുമാനിക്കണം അവനവൻ്റെ പരിസരവും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് അവനവൻ്റെ ഉത്തരവാദിത്ത്വമാണ് പരിസര മലിനീകരണം ചെയ്യുന്നത് മനുഷ്യൻ തന്നെ അല്ലെ മറ്റുള്ളവരല്ലല്ലോ അപ്പോൾ നമ്മൾ തന്നെ തീരുമാനിക്കണം നമ്മുടെ പരിസരവും വീടും വൃത്തിയാകണം അല്ലേ വൃത്തികേടാകരുത് അതിൽ നിന്ന് വരുന്ന രോഗങ്ങൾ അത് നമ്മൾ തടയണയമെങ്കിൽ നമ്മുടെ പരിസരം നമ്മൾ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം വെള്ളം കെട്ടിക്കിടക്കുന്നതൊക്കെയാണെങ്കിൽ ആ വെള്ളം മാറ്റാനും അല്ലെങ്കിൽ പരിസരത്ത് വലിച്ചുവാരി ഇടുന്ന ചിരട്ടകളോ ചിരട്ടകളിൽ മഴവെള്ളം വീണാൽ ആ ചിരട്ടകളിലൊക്കെയാണെങ്കിലും ഈ മഴവെള്ളം വീണ് കഴിഞ്ഞാൽ അത് കൊതുക് വരുമെന്നുള്ള ചിരട്ടകൾ തന്നെയല്ല തുറന്നിരിക്കുന്ന ഏത് പാത്രത്തിലാണെങ്കിലും വെള്ളം വീണ് കഴിഞ്ഞാലത് കൊതുക് മുട്ടയിടും ആ കൊതുകിൽ നിന്നും ഓരോരോ അസുഖങ്ങൾ ഇപ്പോൾ ഡെങ്കിപ്പനി ചിക്കൻഗുനിയ ഇങ്ങനെയുള്ള ഓരോരോ രോഗങ്ങൾ കൊതുകിൽ നിന്നല്ലേ വരുന്നത് അപ്പോൾ നമ്മുടെ പരിസരവും വീടും വൃത്തിയാക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്ത്വമാണ് പിന്നല്ലേ നാട് നന്നാക്കുന്നത് നമ്മുടെ ആദ്യം നമ്മൾ നന്നാകുക അതുകഴിഞ്ഞ് മറ്റുള്ളവരെ നന്നാക്കുക എന്നാണ് പറയാനുള്ളത്